ഹലോ ആ അതെ അതെ പറഞ്ഞോളു ആ പറഞ്ഞോളു എങ്ങനത്തെ ആയിരുന്നു വേണ്ടത് എന്തേലും പാക്കേജ് ആയിട്ട് വേണോ അത് അല്ലാണ്ട് വേണോ എട്ട് ആൾക്കാർക്ക് പോകാനാണെങ്കിൽ നമുക്ക് ടവേരെ ഉണ്ട് ഇന്നോവ ഉണ്ട് ടവേരയിൽ പോകാമെന്ന് വിചാരിക്കുന്നു അല്ലെൽ നമുക്കിനി ട്രാവലർ ഉണ്ട്

അത്ര ദൂരമായത് കൊണ്ട് പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് എട്ട് ഏഴുപേരായിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു ട്രാവലറായിരിക്കും നല്ലത് ആ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉള്ള പാക്കേജ് ഉണ്ട് അത് ഇല്ലാത്ത പക്കമേജും ഉണ്ട് രണ്ട് ടൈപ്പും ഉണ്ട് നമുക്ക് ഒരു പതിനാറ് സീറ്റിൻ്റെ ഒരു ട്രാവലർ കിടപ്പുണ്ട്

അ അതെല്ലാം നമ്മൾ എടുത്തുകൊള്ളും ആ ഫുൾ പാക്കേജാണ് എടുക്കുന്നത് എങ്കിൽ ഫുൾ നമ്മൾ എടുത്തുകൊള്ളും ഒരു ഫുൾ പാക്കേജാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് രൂപയുടെ അടുത്താകും ട്രക്കിങ് കൂടെ ഇൻക്ലൂഡ്ഡ് ആണെങ്കിൽ ഇരുപത്തി രണ്ട് രൂപ കൂട്ടിക്കോ ഇരുപത്തിരണ്ടോക്കെ ആകും ഉം നമ്മൾ അത് രണ്ടാൾക്കും രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോം സ്റ്റേ ആണെങ്കിൽ ഈ റേറ്റിൽ തന്നെ കിട്ടും റിസോർട്ടാകുമ്പം കൂടും മ്മ് പ്രൈവറ്റ് പൂള് ആ പ്രൈവറ്റ് പൂള് ഉള്ളത് ഉണ്ട് ഉണ്ട് ഉണ്ട് സെറ്റ് ചെയ്യാം നമുക്ക് റെഡിയാക്കാം

ആ ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി നമ്മൾ അങ്ങോട്ട് വന്ന് പിക്ക് ചെയ്തോളാം ആ ഓക്കേ ഓക്കേ ഓക്കേ

ആണോ ഓക്കേ ഓക്കേ മൂന്ന് മൂന്ന് ദിവസത്തെ പാക്കേജ് ഓക്കേ ഞാനതിൻ്റെ വരുന്ന ബില്ലും കാര്യങ്ങളും അതിൻ്റെ ഫണ്ടും എല്ലാംകൂടി അയച്ചിട്ട് ചെയ്യാം മൊത്തം പ്ലാനിട്ട് പ്ലാനുംകൂടെ അയച്ചിട്ട് നിങ്ങൾക്ക് അയക്കാം ഇത് തന്നെയല്ലേ വാട്സാപ്പ് നമ്പർ വരുന്നത് ഓക്കേ ഓക്കേ ഈ നമ്പറിലേക്ക് അയക്കാം